ഇപ്പോ ൾ പുതിയ ബിൽഡിങ്ങ് ഫാക്ടറി അല്ലേ വീട് തന്നെയായിക്കോട്ടെ അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മരങ്ങൾ കാടുകളെല്ലാം നശിപ്പിച്ചിട്ടാണ് അതെല്ലാം പണിതെടുക്കുന്നത് അപ്പോൾ അതിൻ്റടുത്ത് പുഴ അതൊക്കെ നമ്മൾ ഇത് പരിസ്ഥിതിയെ ഉപദ്രവിക്കാണെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഒരു പുഴയെല്ലാം വീടിനടുത്ത് പുഴ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒക്കെ പുഴയിലാണ് കൊണ്ടു പോയി ഇടുന്നത് അങ്ങനെയൊക്കെ അത് മലിനമാവുകയാണ് ചെയ്യുന്നത് അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് പരിസ്ഥിതി ദിനത്തിന് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം ഇങ്ങനെ നമ്മൾ മരം വെച്ച് പിടിപ്പിക്കുക അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ കുറച്ചും കൂടി ഒരു എന്തുണ്ടാകും ഈ മരങ്ങളും ഇതൊക്കെ മുറിക്കുന്നത് കൊണ്ടും ഈ ന കാടുകളൊക്കെ നശിപ്പിക്കുന്നത് കൊണ്ടുമാണ് ഈ മണ്ണിടിച്ചിൽ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം ടൂറിസം ടൂറിസം കാരണം വലിയ പ്രശ്നനങ്ങളായിട്ടൊന്നുമില്ല അതിലാൾക്കാർ ഇങ്ങനെ പുഴയിലൊക്കെ എന്നാലും അതും പരിസ്ഥിതിയെ മലിനമാക്കൽ തന്നെയാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിലും നദിയിലും പർവ്വത അങ്ങനെയൊക്കെ സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്ന ടൈമിൽ അവിടെയൊക്കെ നമ്മൾ വേസ്റ്റൊക്കെ വലിച്ചെറിയാറുണ്ട് നമ്മൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ നമ്മളുടെ ഇതുപോലെ അവിടെ ഇവിടെയുമൊക്കെ വലിച്ചെറിഞ്ഞ് എല്ലാം മലിനമാക്കാനാണ് ശ്രമിക്കുന്നത് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് പരിസ്ഥിതി ദിനം അങ്ങനെ ഒരു നല്ല നല്ല ദിനങ്ങളിൽ നമ്മൾ ഓരോ മരം വെച്ച് നടുകയും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം മരം മുറിക്കാതിരിക്കുക ഇത് എന്ത് ഒരു വീടെടുക്കുകയാണേ പോലും ഇഷ്ടം പോലെ മരം മുറിച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അതൊക്കെ വല്ലാത്ത രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെങ്കിൽ മരങ്ങൾ കാട് ഒക്കെയാണ് കൂടുതലായിട്ട് വേണ്ടത് ഇതൊക്കെ നശിപ്പിച്ച് കൊണ്ട് ഓരോരോ ഫാക്ടറികളും ബിൽഡിങ്ങുകളും ഒക്കെ എടുത്തിട്ട് ഒരു കാര്യവുമില്ല പരിസ്ഥിതി മലിനീകരണമാണ് ഇവിടെ ചെയ്യുന്നത് അതൊക്കെ നല്ല രീതിയിൽ ഒരു പരിപാടിയിലൊക്കെ ഒരോരോ നല്ല നല്ല പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് എന്നിട്ട് മരങ്ങൾ നട്ട് പിടിപ്പിക്കാനും അതിനുള്ള കാര്യങ്ങളൊക്കെ നൽകി ജനങ്ങൾക്ക് ബോധവത്കരണം ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുക